ഹലോ പുളിക്കല് ബി എന് എസ് റസ്റ്റോറന്റല്ലേ ആ ചേട്ടാ ഞാന് കുറച്ച് ഭക്ഷണം ഒര്ഡര് ചെയ്യാന് വേണ്ടി വിളിച്ചതാണ് ആ ഇപ്പം എന്താണ് കഴിക്കാനെന്താ ഉള്ളത്

ആ ആ ശരി ശരി ആ ബിരിയാണി ഉണ്ടല്ലേ ആ ചേട്ടാ ആട് ബിരിയാണി ഉണ്ടോ ചേട്ടാ

ആ പോത്തും ഉണ്ടാവും അല്ലേ ഹാ ഹാ ആ എന്താ ചേട്ടാ പൊറോട്ടയ്ക്കെന്താണ് കറിയുള്ളത്

ആ ഹാ ഹാ

ആ പച്ചക്കറി എന്താള്ളത്

കോഴിയുടെ ആണെങ്കിലോ

പിന്നെ പോത്ത് വരട്ടിയതൊക്കെ ഉണ്ടാവൂല്ലേ

ആഹാ ആ ശരി ചേട്ടാ എന്നാൽ എനിക്ക് ഒരു ആട് ബിരിയാണി ഒരു കോഴി ബിരിയാണി രണ്ട് പൊറോട്ട ഒരു പോത്ത് വരട്ടിയത് ഈ ബിരിയാണീടെയൊക്കെ സലാഡൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ടാവൊലേ അല്ലേ ആഹാ ആ ആ കുടിക്കാന് എന്താണ് ഉള്ളത് ജൂസായിട്ട് എന്തെങ്കിലുമുണ്ടോ

ആ നാരങ്ങ ജൂസ് മതി മതി മതി ആ അത് മൂന്ന് എണ്ണം എടുക്കണേ

ഇത് ഞങ്ങൾ വൈത്തൂര് അമ്പലത്തിനടുത്താണ് വീട് വരുമോ ആ നമ്മുടെ മെമ്പറ് കൃഷ്ണേട്ടൻ്റെ വീടിനടുത്ത് വീടിന്റെ ബാക്കോട്ട് ഒരു നൂറ് മീറ്റര് ബാക്കോട്ട് വരും

ആ അതെ അതെ ആ ആ

ആ വെള്ള പെയിന്റടിച്ച ആ വീട് ആ അതെ അതെ ആ ആ ഓക്കേ അതെ ഇത് ഇപ്പം എത്ര സമയം കൊണ്ട് എത്തും അതേലേ ആ ആ ആ എത്ര രൂപയാകുമായിരിക്കും ആ ഹാ ആ ഞാന് വെയ്ക്കാം ഞാന് റെഡി ഞാന് ശ എല്ലാമെടുത്ത് വെയ്ക്കാം

ആ ഓക്കേ ഓക്കേ ഓക്കേ നന്ദി നന്ദി ഓക്കേ